എനിക്ക് ആകെ ഒരു എ ടി എം ആണുള്ളത് എനിക്ക് എസ് ബി ഐ നിന്നുള്ള എ ടി എം കാർഡാണുള്ളത് പൈസയ്ക്ക് കുറവ് വന്നിരുന്ന സമയത്ത് നമ്മൾ ബാങ്കിൽ പോയിട്ട് നമ്മൾ പൈസ എടുക്കാറാണുള്ളത് എനിക്ക് ഓൾറെഡി ഓൺലൈനായിട്ട് എനിക്ക് ഗൂഗിൾ പ്ലേ ഗൂഗിൾ പേ ഗൂഗിൾ പേ ഉണ്ട് അതുകൊണ്ട് മിക്കവാറും എല്ലാ ഡീലിങ്ങ്സും ഞാൻ ഓൺലൈനായിട്ടാണ് ചെയ്യാറുള്ളത് പൈസ എടുത്തിട്ട് ചെയ്യേണ്ട ആവശ്യങ്ങൾ കുറവായതുകൊണ്ട് നേരിട്ട് ഗൂഗിൾ പേ ചെയ്യുന്ന സമയത്ത് നമുക്ക് എ ടി എംമ്മിൽ നിന്ന് അങ്ങനെ പൈസ ഞാനങ്ങനെ എടുത്ത് ഉപയോഗിക്കാറില്ല ബാങ്കിൽ നിന്നുള്ള കസ്റ്റമർ സർവ്വീസ് കുഴപ്പമില്ല എന്നുതന്നെ പറയാം അത്യാവശ്യം നമ്മൾ കാര്യങ്ങൾ വിളിച്ച് ചോദിച്ചാൽ അത്യാവശ്യം നന്നായിട്ട് പറഞ്ഞു തരുന്ന ബാങ്കിങ്ങ് സർവ്വീസ് തന്നെയാണ് ഉള്ളത്